ഹലോ അതെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആണോ കാണിച്ചിട്ടില്ലേ ആണോ മഴ നനഞ്ഞിരുന്നോ എന്നാൽ ചിലപ്പം മഴ വീട്ടിലാർക്കെങ്കിലും വേറെ പനിയുണ്ടോ ഉണ്ട് ആ ചിലപ്പോൾ മഴ നനഞ്ഞതിൻ്റെ ഇപ്പോൾ മൂന്നാല് ദിവസമായി എന്നല്ലേ പറഞ്ഞത് തൊണ്ടവേദന ഉണ്ടോ ആ എന്നാൽ അത് വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വന്നത് വന്ന സ്ഥിതിക്ക് എന്തായാലും നിനക്കും വരാതിരിക്കില്ല പിന്നെ തൊണ്ടവേദനയുള്ളതുകൊണ്ട് ചിലപ്പോൾ പകർച്ചപ്പനിയായിരിക്കും പകർച്ചപ്പനിക്ക് തൊണ്ടവേദനയാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പകർച്ചപ്പനിയായിരിക്കും തോന്നുന്നു അപ്പോൾ നന്നായിട്ട് റസ്റ്റ് എടുക്കണം ആവി പിടിക്കണം കേട്ടോ നന്നായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിച്ചോ പിന്നെ അതുപോലെ തൊണ്ടവേദനയുണ്ടെങ്കിൽ വായിൽ ഉപ്പിട്ടിട്ട് വെള്ളം കവിളിക്കുക പിന്നെ മരുന്ന് ഗുളിക ഇനി ഉണ്ടോ കയ്യിൽ ഉണ്ടോ ഇന്ന് കിടക്കുമ്പോൾ അതു കുടിച്ചോ എന്നിട്ട് പിന്നെ നാളെ രാവിലെ ഒന്ന് വരണം പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വന്നോ എന്താണെന്നുവെച്ചാൽ പകർച്ചപ്പനിയായതുകൊണ്ട് പിന്നെ ക്ഷീണത്തിന് ക്ഷീണം ഒക്കെ ഉണ്ടാവും അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഗുളികയെല്ലാം എഴുതിത്തരേണ്ടിവരും അപ്പോൾ രാവിലെ ബുക്ക് ചെയ്തിട്ട് ഈ നമ്പറിൽ തന്നെ വിളിച്ചു ബുക്ക് ചെയ്താൽ മതി അന്നേരം രാവിലെ ഈ നമ്പരിൽ വിളിച്ചു ബുക്ക് ഒരു എട്ടുമണിക്ക് മുൻപ് വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ നന്നായിട്ട് ആവി പിടിച്ചോ കേട്ടോ തൊണ്ടയ്ക്ക് തന്നെ ആവിപിടിച്ചോ അപ്പോൾ നല്ല മാ വേണമെന്നില്ല ഇപ്പോൾ അച്ഛന്റെയും അമ്മേന്റെയും ഈ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നോ ഈ അച്ഛനും അമ്മക്കുമൊക്കെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറ്റമുണ്ടായിരുന്നോ അത് കുഴപ്പമില്ല അല്ല ആ അത് കുഴപ്പമില്ല അത് വായ് കയ്ക്കുന്നതെന്നുവെച്ചാൽ പനി പനിയുണ്ടെങ്കിൽ വായ് കയ്ക്കും ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ സ്മെൽ എല്ലാമില്ലേ സ്മെൽ എല്ലാം എല്ലാം മണക്കാനൊക്കെ പറ്റുന്നില്ലേ ആ ആ എന്നാൽ പിന്നെ പ്രശ്നമില്ല ഇത് പനീൻ്റെതായിരിക്കും പിന്നെ അവർക്ക് വന്നതുകൊണ്ടായിരിക്കും നിനക്കും വന്നത് ഒരേ വീട്ടിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് റസ്റ്റ് എടുത്തോ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ ക്ഷീണം ഉണ്ടാവും എന്നാൽ പിന്നെ നാളെ രാവിലെ വന്നാൽ മതി ഇവിടെ കാണിച്ചിട്ട് ബാക്കിയുള്ള ടാബ്ലറ്റ്സ് വാങ്ങിയിട്ട് പോവാം രാവിലെ ഒരു എട്ടുമണിക്ക് മുൻപ് ഒരു എട്ടുമണി വരെയേ ബുക്കിംഗ് ഉള്ളൂ അപ്പം എട്ടുമണിക്ക് മുൻപ് വിളിച്ചു ബുക്ക് ചെയ്താൽ ഒരു പത്തുമണിയാകുമ്പോൾ വന്നാൽ മതി ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ കാണിച്ചിട്ട് പോകാം ആണോ ആ എന്നാൽ ഓക്കെ